ഹലോ ഡോക്ടറല്ലേ എനിക്ക് രണ്ട് മൂന്ന് ദിവസമായിട്ട് പനിയും ജലദോഷവും ഉണ്ട് വേറെ നടുവേദന ഉണ്ട് അതെ ചുമ ചെറുതായിട്ട് ഉണ്ട് ഇല്ലില്ല പുഴയിലൊന്ന് പോയിരുന്നു പുഴയിലൊന്ന് പോയിരുന്നു വേറെ ഒന്നുമില്ല അങ്ങനൊരു ബുദ്ധിമുട്ടും ഇല്ല രണ്ട് മൂന്ന് ദിവസമായിട്ട് പനി വല്ലാണ്ട് ഉണ്ട് അതുപോലെ തന്നെ തൊണ്ട വേദനയുമുണ്ട് തൊണ്ട ഇല്ല ഇപ്പോൾ ഒരു മരുന്നും കഴിക്കുന്നില്ല കാണിച്ചിട്ടില്ല ഇല്ല ഒന്നും കഴിച്ചിട്ടില്ല ഇല്ല ഒരു മരുന്നും ചെയ്തില്ല അ നടുവേദന വേറെ ജലദോഷവും ചുമയും ഉണ്ടായിരുന്നു അതെ തൊണ്ടയിൽ വേദന ഉണ്ടായിരുന്നു അതെ ഉണ്ട് ഉണ്ട് അത് ആദ്യമേ ഉള്ളതാണ് അ ആദ്യം അതാ ഇല്ല ഇല്ല അതിങ്ങനെ പനി എന്തെങ്കിലും വരുമ്പോൾ മാത്രമേ ടോൺസിൽസ് വരികയുള്ളു അ ഉണ്ട് അ ഉണ്ട് ഉണ്ട്